ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ തുന്നൽ പഠിക്കാൻ എന്നെ എൻ്റെ വീട്ടുകാരും അയച്ചത് എന്നെ വീട്ടിൽ അന്ന് നമ്മൾക്ക് തുന്നലിനെപ്പറ്റി അത്ര അറിയത്തില്ല വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു പോയി എന്തെങ്കിലും ഒരു ചെറിയ തൊഴിലുകൂടി പഠിപ്പിക്കണം എന്ന് അങ്ങനെയാണ് തുന്നൽ പഠിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരൊക്കെ ഒരുമിച്ച് കൂടിയൊരു ഒരു ടീച്ചറിൻ്റെ കീഴിൽ അങ്ങനെ പോയിരുന്നു പഠിക്കുക പഠിക്കുകയാണ് ചെയ്തത് അതു പഠിച്ച് കഴിഞ്ഞപ്പം ആദ്യമേ കുഞ്ഞ് കുഞ്ഞുടുപ്പുകളൊക്കെ തയ്ച്ച് കൊച്ചുങ്ങൾക്കൊക്കെ ഇടുകയും കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴൊക്കെത്തേനും വീണ്ടും വീണ്ടും അത് തയ്ക്കണം അങ്ങനത്തെ ഒരു ഒരൂ ഒരുടുപ്പുകൂടി തയ്ക്കണം അങ്ങനെ ഒരു താല്പര്യം തോന്നിത്തുടങ്ങി അതുകഴിഞ്ഞ് പിന്നെ എല്ലാ വലിയ മറ്റതെല്ലാം പഠിച്ചു കഴിഞ്ഞ് എല്ലാ വസ്ത്രങ്ങളെല്ലാം തയ്ക്കാനൊക്കെ തുടങ്ങിയപ്പം വസ്ത്രം അങ്ങനെ ഓരോരുത്തർ പിന്നെയത് ഓരോന്ന് കൊണ്ടുവന്നു തന്നു തയ്ക്കാനൊക്കെത്തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ പത്തു പൈസ വരുമാനമായി വരുമാനം വരുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ആ വരുമാനമാർഗ്ഗം കൊണ്ടും ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഫീസ്സ് കൊടുക്കാൻ ഒരിതാവും വീട്ടിലുള്ളവർക്ക് തന്നു വിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്നേരം ആയാൽ ഈ തയ്ച്ചത് നമ്മുടെ വീട്ടിലിരുന്നായാലും ഒരു ചെറിയ തയ്യൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പത്തു രുപ കിട്ടിയാൽ തന്നെയൊക്കെ അത് വലിയ ഒരു വരുമാന മാർഗ്ഗമാണ് അത് അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയി പീസ്സ് കൊടുക്കും

അങ്ങനെ മിഷ്യൻ മേടിച്ച് തയ്ച്ച് തയ്ക്കുകയൊക്കെ കൂലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലും അത്യാവശ്യം കാര്യങ്ങൾക്ക് വീട്ടിലും എടുക്കാനുള്ള കാര്യങ്ങളായി അങ്ങനെ മൂത്ത സഹോദരങ്ങൾക്കൊക്കെ പത്തു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു വരുമാനമാർഗ്ഗം കിട്ടി അപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും തയ്ക്കണം തയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പിന്നെ ആരെയെങ്കിലും കണ്ടാലും തയ്ക്കുന്നുണ്ട് കേട്ടോ എന്നു പറഞ്ഞു തയ്ക്കുന്നതിനൊരു ബോർഡ് വെച്ചു അപ്പോഴത്തേക്കും പിന്നെ ആൾക്കാർ ഒത്തിരി പേർ തയ്ക്കാൻ കൊണ്ടുവന്ന് തന്നു അങ്ങനെ അങ്ങനെ തയ്ച്ചു അത് കഴിഞ്ഞാൽ ചെറിയ പ്രായമൊക്കെ അപ്പോൾ കണ്ണൊക്കെ അറിയാൻ മേലാതൊക്കെ പോകും കണ്ണിനൊക്കെ കാഴ്ച്ച കുറഞ്ഞ് വന്നപ്പം കുറേശ്ശെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ഈ കണ്ണട വെച്ചുമൊക്കെ തയ്ക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആണിപ്പോഴും തയ്ക്കുന്നത് എന്നാലും തയ്യലിൽ നിന്നും നല്ല വരുമാന മാർഗ്ഗമാണ് കിട്ടുന്നതെന്ന് അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് തുടരാൻ തോന്നുകയാണ് അപ്പോൾ അതിൽ നിന്ന് പോകാനോ കണ്ണിന് കാഴ്ച്ച ഒക്കെ കുഴപ്പമൊന്നും വരാതിരിക്കട്ടെയെന്ന് ആഗ്രഹിക്കുകയാണ് അത് നിന്നുപോകാതെ തയ്ക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ് ഇപ്പോഴും ആൾക്കാർ കൊണ്ടുവന്ന് തയ്ക്കാൻ തരുന്നൊക്കെയുണ്ട് എന്നാൽ കുറെയോക്കെ തയ്ക്കുന്നുമുണ്ട് തയ്യലിനോടുള്ള ആ ആഗ്രഹം അതൊരിക്കലും കുറഞ്ഞു പോയിട്ടില്ല ഇതുവരെ അതു വീണ്ടും വീണ്ടും ആഗ്രഹം തയ്ക്കാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്